ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല രീതിയിലുള്ള പകർച്ച വ്യാധിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കേരളത്തില് ഉണ്ട് കാരണം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ മഴയുള്ള ഒരു ടൈമാണ് അപ്പോൾ ആ ടൈമില് പകർച്ച വ്യാധികൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയില് നമ്മളുടെ ജനങ്ങളെ ബാധിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ എലി എലി എന്ന് എലി പനി അങ്ങനത്ത മഞ്ഞപ്പിത്തം മലേറിയ അങ്ങനത്തെ പല രീതിയിലുള്ള എന്താ പറയുക പല രീതിയിലുള്ള അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ആൾക്കാരിൽ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് അപ്പം രോഗ രോഗം ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ നമുക്ക് തടയണമെങ്കില് കൂടുതലായിട്ടും നമ്മള് ഇപ്പോൾ കെട്ടി കിടക്കുന്ന വെള്ളങ്ങള് അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇപ്പോൾ കൊതുക് മുട്ടയിടുന്നൊരു സ്ഥലങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മള് നല്ല രീതിയില് ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് പകർച്ച വ്യാധിയും കാര്യങ്ങളൊക്കെ കുറവുണ്ടാവുകയുള്ളൂ പിന്നെ നമുക്ക് എന്താ പറയുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ പുറത്ത് നിന്ന് വന്ന ഇഷ്ടംപോലെ ഭക്ഷണങ്ങൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് ഷവർമ്മ അങ്ങനെ ഷാവായി അങ്ങനത്തെ കുറെ പല അധികം ഭക്ഷണങ്ങൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് ഒഴുവാക്കുക ആണെങ്കിൽ നല്ല രീതിയിലുള്ള ആരോഗ്യം നമുക്ക് തന്നെ ഉണ്ടാകുന്നതാണ്